ഹലോ മറിയാമ്മ ജോൺ ആൻറി അല്ലേ ആ ഞാൻ ഒരു ടൂറിസ്റ്റ് ആയിരുന്നു എൻ്റെ പേര് ഏഞ്ചല എന്നാണേ ആ ഞാൻ അപ്പോൾ വിളിച്ചത് നിങ്ങളുടെ നാട്ടിലെ കൾച്ചർ സംത് ഇങ്ങനെ അതേക്കുറിച്ച് ടൂറിസ്റ്റ് പ്ലേസ് അതേക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ അപ്പോൾ എൻ എങ്ങനെയാണ് അവിടുത്തെ ആചാരങ്ങൾ അങ്ങനെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആ അവിടുത്തെ പ്രധാനമായിട്ട് വരുന്ന ആചാരം അങ്ങനെ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്നത് അങ്ങനെ ഉള്ളത് ഓണം എന്നാണോ അപ്പോൾ അവിടുത്തെ ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് ആ അപ്പം അതിനായിട്ട് പ്രത്യേക ഡ്രസ്സ് അവിടെ ഉള്ളവർ എങ്ങനത്തെ ഡ്രസ്സ് അങ്ങനെയൊക്കെ ഉണ്ടോ എങ്ങനെ വസ്ത്രങ്ങൾ എങ്ങനെയാണ് ധരി ആണോ ഓ അപ്പം പുറത്തുനിന്ന് ഒരാൾ വന്നാൽ നിങ്ങളുടെ കൂടെ പരിപാടികൾ പങ്കെടുക്കാൻ അങ്ങനെയൊക്കെ പറ്റുമോ ആ അത് ഏത് സമയത്താണ് ഓണം ഇപ്രാവശ്യത്തെ ആ കറക്റ്റ് ഡേറ്റ് ഇങ്ങനെ ഓണത്തിന് വീടുകളിലാണോ അതോ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ആണോ പരിപാടികളൊക്കെ ആണോ ഞായറാഴ്ചകളിലാണോ കുർബാന അതോ എല്ലാ ദിവസങ്ങളിലും കുർബാന ഉണ്ടാവാറുണ്ടോ ആ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ നിങ്ങളുടെ ഭാഷ പഠിക്കാൻ അങ്ങനെ ഭാഷയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ മലയാളം അല്ലാണ്ടെ ഉള്ള പുറത്തുനിന്നും ഉള്ള ആളുകൾ വന്ന് താമസിക്കാൻ അങ്ങനെ അവർക്ക് വന്ന് താമസിക്കാനുള്ള സ്ഥലം അങ്ങനെയൊക്കെ ഉണ്ടോ അതെയോ ആ അതുപോലെ ഫുഡ് അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഒക്കെ ഓണത്തിന് ഉണ്ടാക്കുമോ നോൺ വെജ് ആണോ അതോ വെജ് ഐറ്റംസ് ആണോ കൂടുതലും ആ എന്നാൽ ഓക്കെ ആൻറി ഓണത്തിന് നമുക്ക് കാണാം